നെയ്ത്തിലും തുന്നലിലും നെയ്ത്ത് നെയ്ത്തിലും തുന്നിലിനും പൊതുവേ പുസ്തകങ്ങളിൽ ഒന്നും നോക്കി അല്ല ഒരു പരിധി വരെ പഠിക്കുന്നത് നെയ്ത്ത് നെയ്ത്ത് എന്ന് പറയുന്നത് പിന്നെ യൂട്യൂബ് പരസ്യം പുസ്തകമോ നോക്കി സോഷ്യൽ ചാനൽ മീഡിയ നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തുന്നൽ ഒരു പരിധി വരെ അങ്ങനെ ഒക്കെ പഠിക്കാം എങ്കിൽ നെയ്ത്ത് എന്ന് പറയുന്നത് കയ്യ് കൊണ്ട് രണ്ട് കയ്യും രണ്ട് കാലും ഒരു പോലെ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് അപ്പം അത് യൂട്യൂബ് നോക്കി ഒക്കെ പഠിച്ചാലും ഒരുപരിധി ഒരു പരിധി വരെ വിജയിക്കണം എന്നില്ല പക്ഷേ ഒരു മിന്നെ തുന്നൽ ഒരു പരിധി വരെ കട്ടിങ്ങും കാര്യങ്ങൾ ഒക്കെ കാണുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ ചെയ്യാനും അത് അനുസരിച്ച് അത് മ്മേ ക്ലോത്ത് കട്ട് ചെയ്യാനും അങ്ങനുള്ള കാര്യങ്ങൾക്ക് ഒക്കെ നമുക്ക് സാധിക്കുന്നു പിന്നെ സോഷ്യൽ മീഡിയ അ വഴി ഓരോ പുതിയ പുതിയ ഫാഷനുകളും മോഡലുകളും കാണുമ്പോൾ ഒരു പരിധി വരെ ശ്രദ്ധിക്കാറുണ്ട് കാരണം തുന്നലിനോട് താല്പര്യമുള്ളവർ ആണ് ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഒരു നെയ്ത്ത് എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം രണ്ട് കയ്യും രണ്ട് കാലും ഒരുപോലെ പ്രവർത്തിക്കേണ്ട ഒരു ജോലി ജോലി ആയത് കൊണ്ട് പലപ്പോഴും നെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്ക ഒരു ഒരാൾക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ നെയ്ത്ത് നമ്മൾ നേരിട്ടാണ് കണ്ടേക്കുന്നത് കമ്പനി വഴി ചെയ്യുന്നത് ചില സ്ത്രീകൾ വീട്ടിലിരുന്ന് കുടിൽ വ്യവസായി വായും നെയ്ത്ത് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും ഒരു പോലത് ചെയ്യാൻ സാധിക്കില്ല കാരണം രണ്ട് കയ്യും രണ്ട് കാലും നമ്മുടെ കണ്ണുകളും എല്ലാം എപ്പോഴും ഒരു പോലെ യോഗകരമാകുന്ന ഒരു ജോലിയാണ് അത് കാരണം ആ ജോലിയിൽ അത് നമ്മൾ യൂട്യൂബ് നോക്കിയോ മീഡിയാകൾ നോക്കിയോ അല്ലേ സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് അക്കൗണ്ടുകൾ വഴിയോ ഒന്നും നമുക്ക് അത് ചെയ്യാൻ സാധിക്കേല ഒരു പരിധി വരെ കാരണം അതിന് ഒത്തിരി കാര്യങ്ങൾ അതിന്റെതായിട്ട് ചെയ്ത് നൂല് ഇടുന്നത് അങ്ങനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ ചെയ്യാനുണ്ട് അത് കാരണം അത് നമുക്ക് സാധിക്കേല പിന്നെ തുന്നൽ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഈ യൂട്യൂബ് വ ചാനൽ വഴിയും പുസ്തകങ്ങൾ വഴി ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പല ചാനലുകളിൽ ഒക്കെ കാണിക്കുന്ന പല കാര്യങ്ങൾ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും തുന്നൽ എന്നാലും അതിനൊക്കെ ഒരു പരിതിയുണ്ട് ഒരു പക്ഷേ അളവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനല് വഴി നോക്കി എന്ന് നമുക്ക് എളുപ്പം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരികേല അളവുകളും കാര്യങ്ങളു ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കേല അവർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കേല നമ്മൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണിക്കുന്ന പോലെ ചെയ്യാൻ നോക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് അതുപോലെ തുണി കട്ട് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും സാധിച്ചെന്ന് വരികേല അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഒരു യൂട്യൂബ് വഴി ഒക്കെ നോക്കി ചെയ്യുന്നത് സാ വിജയ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ് ഈ നെയ്ത്തെന്ന് പറയുന്നത് പക്ഷേ തുന്നൽ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും അളവും കാര്യങ്ങൾ ഒക്കെ കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ഒക്കെ നമുക്ക് കിട്ടുവാണേൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നാലും നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തുന്നലും കാര്യങ്ങൾ ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരസ്യപ്പെടുത്തുന്നത് ഒരു അവരവർ ചെയ്യുന്ന അവർ ചെയ്തേക്കുന്ന ജോലി അനുസരണക്കേട് കാണിച്ച കൊണ്ടാണ് നമ്മൾ ഒരു വസ്ത്രം തുന്നുമ്പോൾ അത് അതിൻ്റെ ലേറ്റസ്റ്റ് ഫാഷനുകൾ അതിൻ്റെ ത്രെഡ് വർക്ക് അങ്ങനുള്ള കാര്യങ്ങൾ ഒക്കെ മറ്റുള്ളവർ മുമ്പി കാണത്തക്ക വിധത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരോർ ചെയ്യുന്ന വർക്കുകൾ ഏറ്റവും നല്ലതാണ് എന്ന് മറ്റുള്ളവരെ ബോദ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോരുത്തർ അവരോർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഒരു പരിധി വരെ ആൾക്കാർ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമുക്കാലും ആൾക്കാരും അവന് യൂട്യൂബിലൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്യാറ് തയ്ക്കാറുണ്ട് തയ്ക്കുന്ന തയ്ക്കുമ്പം ഇപ്പോഴും പല സ്ത്രീകളും യൂട്യൂബ് ചാനലൊക്കെ നോക്കിയ തയ്ക്കുന്നത് എങ്കിൽ എല്ലാവർക്കും ഒന്നും അതൊന്നും പ്രാവർത്തികം ആവണോന്നില്ല താല്പര്യം അതിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പരിധി വരെ പഴയ രീതിയിലുള്ള തയ്യൽ സെൻ്ററുകൾ ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയ ആൾക്കാർ തയ്ക്കാറുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഉള്ളൊരു കഴിവ് അനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത് ചിലർക്ക് ഇതിനോടൊക്കെ ഭയങ്കരമായ താല്പര്യമുണ്ട് യൂട്യൂബ് വഴി നോക്കാനും തയ്ക്കാനും അങ്ങനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ അങ്ങനെ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ആൾക്കാർ യൂട്യൂബിലൊക്കെ നോക്കി തയ്ക്കുന്നത് എന്നാലും പഴയ സ്ത്രീകളെ കാലത്തെ ആൾക്കാരെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് പൊതുവായി ഒരു വരുമാന മാർഗം നേടണം എന്നും സ്വന്തം കാലിൽ നിൽക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ ആ സ്ത്രീകളെല്ലാം തന്നെ അവരവർക്ക് വേണ്ട രീതിയിലുള്ള ഡ്രസ്സുകൾ സ്വയം സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെ സമൂഹത്തിൽ സമൂഹത്തിൽ പരിചയം പരിചയപ്പെടുത്തുകാന്ന് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്കും അവരോർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കണം അവനോൻ ചെയ്യുന്നത് നല്ലതാണ് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒക്കെയാണ് ഒരു പരിധി വരെ ആൾക്കാർ ഓരോ പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് അപ്പം പിന്നെ ഏറ്റവും നല്ലത് തന്നെ അവരവർക്ക് ചെയ്യണം എന്ന ആഗ്രഹം കാണും